ഹലോ വെൽട്ടൻ റസ്റ്റോറൻറ്റ് അല്ലേ ഞാൻ നേരത്തെ ഇപ്പം നിങ്ങളുടെ ആപ്പിൽ ഒരു കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുറച്ച് ഫുഡ് ഐറ്റംസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേവരെ എത്തീട്ടില്ല ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ അത് എവിടം വരെ എത്തിയെന്നോ നിങ്ങൾ പാക്ക് ചെയതോയെന്നോ എന്താന്ന് എന്ന് അറിയാൻ വേണ്ടിട്ടാ അതിൻ്റെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചതായിരുന്നു ആ ഓക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലേ അത് ഉണ്ടാക്കി കഴിഞ്ഞോ നിങ്ങള് ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ വെയ്റ്റിംങ്ങിലായിരുന്നു ഇപ്പം സമയം ഇത്രയും ആയില്ലേ അപ്പം അവർക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത് ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ രണ്ട് സാധനം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ നേരത്തെ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അഞ്ച് ബിരിയാണി പിന്നെ അതിൻ്റെ കൂടെ ഒരു അൽഫം മന്തി കൂടെ വെച്ചോളൂ ഒരു ഫുൾ തന്നെ വെച്ചോ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊന്ന് വേഗം എത്തിക്കാൻ പറ്റുവായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു കാരണം ഇവിടെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാ ആ ഓക്കേ ഓക്കേ ഞാൻ കരുതി ഇനി ഓർഡർ സ്വീകരിച്ചിട്ടുണ്ടാവില്ലെന്ന് അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ എത്രയും പെട്ടന്ന് എത്തിക്കൂ കേട്ടോ ആ ശരി എന്നാൽ